ഞാൻ മാതൃ ഭാഷയിലല്ലാത്ത ഒരു തർജ്ജിമ പുസ്തകം വായിച്ചത് വിശുദ്ധ ബൈബിളായിരുന്നു ആദ്യമേ എനിക്ക് കുറെ ഭാഗങ്ങളൊക്കെ അത്രമാത്രം മനസിലാക്കാൻ സാധിച്ചില്ലെങ്കിലും തുടർവായനയിൽ നന്നായിട്ട് അതിന്റെ അർത്ഥങ്ങൾ ഗ്രഹിക്കുവാനും മലയാളം വായിക്കുന്ന പോലെയുള്ള ഒരനുഭവത്തിലേക്ക് പോകാനും എനിക്ക് സാധിച്ചു ഒക്കു അതുകൊണ്ട് നമുക്ക് ഒത്തിരിയേറെ പുതിയ വാക്കുകളും അതോടൊപ്പം തന്നെ ഈ മലയാളത്തേക്കാൾ ആപ്റ്റായിട്ടുള്ള ചില വാക്കുകളുടെയൊക്കെ യഥാർത്ഥ അർത്ഥം ഇങ്ക്ളീഷ് തർജ്ജിമയിൽ നിന്നാണ് നമുക്ക് ലഭിക്കാനായിട്ട് സാധിച്ചത് ഈ മലയാളത്തിൽ വായിക്കുന്നതിന്റെ പലപ്പോഴും നമ്മൾ മലയാളം വായിക്കുമ്പോൾ കിട്ടിയ അതേ ആ ഒരു ആത്മീയമായ ഒരു ഉണർവും സന്തോഷവും ഈ ഇങ്ക്ളീഷ് പരിഭാഷ അല്ലെങ്കിൽ ഇങ്ക്ളീഷിന്റെ ആ പുസ്തകം വായിച്ചപ്പോൾ അല്ലെ മലയാളം പരിഭാഷ ഇങ്ക്ളീഷിലേക്ക് വന്നപ്പോൾ ആ പുസ്തകത്തിലൂടെ നമുക്ക് നേടിയെടുക്കാനായിട്ട് സാധിച്ചു നമ്മൾ മറ്റ് ജീവിതത്തിലാദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു മാതൃ ഭാഷയിലല്ലാത്ത ഒരു ഗ്രന്ഥം വായിക്കാനായിട്ട് ഇടയാകുന്നത് ആദ്യം അതിന്റെ ബാലാഷ്ടതകളൊക്കെ കുറെ ഉണ്ടായിരുന്നുവെങ്കിലും പിന്നീട് ആ ബാലാഷ്ടതയെല്ലാം മാറി യഥാർത്തത്തിൽ ആ ഒരു നമുക്ക് നന്നായിട്ട് ആ ബൈബിള് എങ്ങനെയാണോ മലയാളം ബൈബിള് വായിക്കുന്നത് ആ ബൈബിള് വായിക്കുന്ന അതെ അനുഭവത്തിലേക്ക് അതേ ആഴങ്ങളിലെക്ക് ആഴ്ന്നിറങ്ങുവാനായിട്ട് എനിക്ക് സാധിച്ചു അത് മുന്നോട്ടുള്ള ജീവിതത്തിന് ഒത്തിരിയേറെ പ്രയോജനം ലഭിക്കുകയുണ്ടായി കാരണം ഒത്തിരിയേറെ പുതിയ വാക്കുകൾ പുതിയ ഫേയ്സ്സ്കൾ അതുപോലെ തന്നെ പുതിയ ശൈലികൾ ഇവയെല്ലാം ആ ഇങ്ക്ളീഷ് വായനയിലൂടെ നമുക്ക് നേടിയെടുക്കാൻ സാധിച്ചു അതോടൊപ്പം തന്നെ നമുക്ക് മലയാളം വായിക്കുന്ന ആ ഒരു ആ അനുഭവത്തിൽ നിന്ന് വ്യത്യസ്തമായ ഒരനുഭവം അതുപോലെ തന്നെ കുറെ കൂടി നമുക്ക് മനസ്സിൽ പതിയുന്ന അതേപോലെ കുറെ കൂടി നമുക്ക് മനസിലേക്ക് ആഴ്ന്നിറങ്ങുന്ന ഒരു ശൈലിയാണ് പലപ്പോഴും ഇങ്ക്ളീഷിലെ ആ തർജ്ജിമയിൽ നമുക്ക് ലഭിച്ചത് അതുകൊണ്ട് നമുക്ക് വളരെ സന്തോഷവും അതുപോലെ ഒരു ആത്മ സംതൃപ്തിയും നമുക്ക് ഇതിലൂടെ നമുക്ക് നേടിയെടുക്കാനായിട്ട് സാധിച്ചു